എനിക്ക് അങ്ങനെ പക്ഷി നിരീക്ഷ പാരമ്പര്യങ്ങൾ ഒന്നും ഇല്ല പക്ഷേ എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്കും ഒക്കെ അന്ധവിശ്വാസമുള്ള പല അന്ധവിശ്വാസങ്ങളും രാത്രി പാമ്പെന്ന് പറയരുത് പാമ്പെന്ന് പറഞ്ഞാൽ പാമ്പിനെ കാണും രാത്രി ചൂളമടിക്കരുത് ചൂളമടിച്ചാല് എന്ത് രാത്രി പാമ്പ് കൂട്ട് കിടക്കാൻ വരും പിന്നെ ഒരാൾ എവിടെലും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അയാളെ പുറകിൽ നിന്ന് വിളിക്കരുത് പോയാൽ വിളിച്ചാൽ ആ പോയ കാര്യം നടക്കില്ല പിന്നെന്താ അങ്ങനെ കുറെ അന്ധവിശ്വാസങ്ങൾ ഒക്കെ ഉണ്ട് അത് ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട് ഒരു രാത്രിയിൽ അല്ലെങ്കിൽ ഒരുപാട് നേരം സന്തോഷം വന്നാൽ ഒരുപാട് നേരം ചിരിക്കാൻ പാടില്ല ചിരിച്ചാൽ അന്ന് പിന്നീട് കരയാൻ ഉള്ളതാണ് ആ ചിരി എന്നാണ് പറയുന്നത് അങ്ങനത്തെ കുറെ അന്ധവിശ്വാസങ്ങൾ ഉണ്ട് പിന്നെ എവിടേലും പോകാനായിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും ചൂലും കൊണ്ട് ഇറങ്ങി നിന്നാൽ അത് ആ പോക്ക് പിന്നെ പോകേണ്ട ആവശ്യമില്ല അതൊരു ഫലമില്ലാത്ത പോക്കാണ്